ഹലോ ഞാൻ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്തിലേയ്ക്ക് പോകണം എന്ന് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റേൽസിനെക്കുറിച്ച് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയണത് നമ്മൾ ഒരു ഒരു ഷോട്ട് ആയിട്ടുള്ള പിരിഡിൽ പോവാൻ പറ്റിയ തരത്തിലുള്ള ഒരു വെക്കെഷനാണ് പ്ലാൻ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഏതൊക്കെയാണ് ഉള്ളത് ആ അതേ അതേ അങ്ങനെ തന്നെ ആണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ അകത്തു തന്നെ കുറച്ച് ടൈം സ്പെൻ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് നോക്കുന്നത് അത്തരത്തിൽ വല്ലതും ഉണ്ടോ ഓക്കേ നമ്മൾക്ക് ഇങ്ങനെ ഏതിലെങ്കിലും ഒരു ഒരു ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ ടൈം സ്പെൻ്റ് ചെയ്യുന്ന രീതിയിൽ അതു മതി

അത് ഓക്കേ ആണ് നമ്മൾ ഈ കുടുംബത്തോടെ പോകുമ്പോൾ അതിൻ്റെ ചിലവൊക്കെ എങ്ങനെയാണ് വരിക ഓക്കേ പിന്നെ ഓക്കേ അത് നമുക്ക് അത് തന്നെ ഫിക്സ് ചെയ്യാം ഓക്കേ അത് റെഡി ആക്കിക്കോളൂ ആ അതേ ഓക്കേ ഒക്കെയാണ് എന്നാൽ അത് കൺഫേം ആക്കിക്കോളൂ ആ ആ ഓക്കേ ശരി